ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇവിടെ ഒരുപാട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും ലാൻമാർക്കുകളും ഒക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ കൂടുതലും ആയിട്ട് നമ്മൾക്ക് അറിയപ്പെടുന്നത് സൺ ടെമ്പിള് ഗോൾഡൻ ടെമ്പിള് ഇന്ത്യ ഗേറ്റ് കുത്തബ്മിനാർ താജ്മഹൽ ഇതൊക്കെ വലിയ വലിയ രാജാക്കന്മാരൊക്കെ പണിതു സൃഷ്ട്ടിച്ച അവരുടെ ഓരോ കലകളൊക്കെയാണ് അതില് പതിച്ചിരിക്കുന്നത് ഇടയ്കൊക്കെ എല്ലാവരും ഇവിടെപ്പോയി നോക്കുകയും സന്ദര്ശിക്കുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ പിന്നെ കൊച്ചി ഇടുക്കി ഇടുക്കിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഊട്ടി കൊടൈക്കനാൽ മൈസൂർ അങ്ങനെ ഒരുപാട് കാശ്മീർ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് കാണാൻ മാത്രം ഒരുപാടുകൾ ഉണ്ട് മറ്റുള്ള രാജ്യങ്ങളില് നിന്നുമൊക്കെ വിനോദസഞ്ചാരികളെ നമ്മൾ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് കൊച്ചിയെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ വാട്ടർ മെട്രോയും ലോകത്തിലെ ആദ്യത്തെ തന്നെ ഇതായിട്ടുള്ള വാട്ടര് മെട്രോ കൊച്ചിയിൽ വന്നേക്കുന്നത് പിന്നെ ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ ഒക്കെ എങ്ങനെ എന്ന് വച്ചാൽ ഭയങ്കര തണുപ്പിന്റെ സ്ഥലമാണ്